ഞാൻ എൻ്റെ കൃഷിസ്ഥലം നനയ്ക്കുന്നത് വെള്ളം കൊണ്ടാണ് പൈപ്പിലൂടെ വെള്ളം പമ്പ് ചെയ്യിപ്പിച്ച് വിരൽ വെച്ച് പമ്പിൻ്റെ ഒരു ഒരു അഗ്രഭാഗം ഭാഗം മുഴുവനായി മൂടത്തക്ക വിധം കുറച്ചൊരു സ്ഥലം ബാക്കി വെക്ക് അതിലൂടെ വെള്ളം ശക്തിയായി പുറം തള്ളിപ്പിച്ചാണ് എൻ്റെ കൃഷിസ്ഥലങ്ങളിൽ ഞാൻ വെള്ളം എത്തിക്കുന്നത് ഞാൻ മഴയെ അധികം ആശ്രയിക്കാറില്ല എങ്കിലും കുടിവെള്ളം അമൂല്യമായതിനാൽ മഴയെ ഞാൻ അധികം ആശ്രയിക്കാറുണ്ട് മഴവെള്ളം നേരിട്ട് ഭൂമിയിൽ പതിക്കുമ്പോൾ തന്നെയുള്ള മണം അതിഗംഭീരമായ ഒരു സുഗന്ധം തന്നെയാണ് മഴവെള്ള സംഭരണം ഞാൻ ഒരു കുഴിയായും പിന്നെ ഒരു ടാങ്കിൻ്റെ പൊക്കത്തോടെ പൈപ്പ് കെട്ടി വെച്ചും ഞാൻ മഴവെള്ളം സംഭരിക്കാറുണ്ട് ഈ മഴവെള്ളം നേരിട്ട് നേരിട്ട് കുറച്ച് കുറച്ചായി ചെടികളിലേക്ക് നനയ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട് പരമാവധി എങ്ങനെയൊക്കെ നമ്മൾ ഈ മഴവെള്ളത്തെ സംരക്ഷിക്കാവോ അങ്ങനെയൊക്കെ ഞാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളുടെ എൻ്റെ ഈ രീതി സുസ്ഥിരമാണ് എങ്കിലും ഞാൻ മഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്